മലയാള ഭാഷ സംസാരിക്കുമ്പോഴോ അത് എഴുതുമ്പോഴോ നമുക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ട അവസ്ഥ എന്തിനാണ് വരണ്ടത് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ലല്ലോ കാരണം നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം നമ്മുടെ ഭാഷയാണ് നമുക്ക് അതിൽ എഴുതാൻ ഇപ്പം ഞാൻ പറയട്ടെ ഇംഗ്ലീഷ് ഒക്കെ മലയാളികളായിട്ട് ഇപ്പം വലിയ വലിയ നിലയിൽ എത്തിട്ട് മലയാള ഭാഷ അറിയില്ലാത്ത ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടം അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കുന്നു പക്ഷെ മലയാളം അറിയുന്ന എനിക്ക് മലയാളം സംസാരിക്കാൻ മടി തോന്നേണ്ടയോ അതോ മലയാളത്തില് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നേണ്ടയോ അത് എഴുതുമ്പോൾ എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ട് നേരിടേണ്ട അവസ്ഥ വന്നിട്ടില്ല അതിൻ്റെ ആവശ്യവും ഇല്ല കാരണം എഴുതാൻ മലയാളം വായിക്കാനും എഴുതാനും അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഈ മലയാളം എഴുതുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് നേരിടുക ഒരു ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ല സംസാരിക്കും എന്ത് സംസാരത്തിൽ എന്ത് ബുദ്ധിമുട്ടാണ് നേരിടുക ഒരിക്കലും ഇല്ല കാരണം നമുക്ക് കംഫർട്ട് എന്താണോ അതിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് സാധാരണകാരുടെ മലയാ ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഞാൻ ഒരു അമ്മുമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ ഇല്ല ഹിന്ദി സംസാരിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ എനിക്ക് അവർക്ക് എന്താണ് മനസിലാകുന്നത് മലയാളം ആയിരിക്കും അപ്പം നമ്മൾ നല്ല രീതിയിൽ മലയാളം സംസാരിക്കുമ്പം അവർക്കും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നമുക്കും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അപ്പം നമ്മുടെ ചുറ്റും ഉള്ളവരെ നമ്മൾ എപ്പോഴും കംഫർട്ട് ആയിട്ട് കൊണ്ട് നടക്കാൻ ശ്രമിക്കണം അപ്പം അറിയാത്ത ലാങ്ഗുവേജിൽ വലിയ ആളാവാൻ വേണ്ടീട്ട് നമ്മൾ വലിയ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല നമുക്ക് അറിയാവുന്ന ലാങ്ഗുവേജ് പറയുന്നെയായിരിക്കും നല്ലത്